പരസ്യം പണ്ടു തൊട്ടേ ഈ വലിയ ഫേമസ് ആയ ആൾക്കാർ പരസ്യം ചെയ്യാണെങ്കിൽ മാത്രമാണ് ആൾക്കാർ വിശ്വസിക്കുള്ളു അതായത് ഈ മമ്മൂട്ടി മോഹൻലാൽ പ്രിഥ്വിരാജ് മഞ്ജു വാര്യർ അങ്ങനെ ഈ സിനിമ ഫീൽഡിലുള്ളവരൊ അല്ലെങ്കിൽ ഈ ക്രിക്കറ്റ് ഫീൽഡിലുള്ള മഹേന്ദ്ര സിംഗ് ധോണി അങ്ങനെയുള്ള ആൾക്കാർ അതായാത് കുറച്ചും കൂടെ ഫേമസായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഗോൾഡിലായാലും ഗോൾഡിനെ കണ്ടിട്ടില്ലേ മലബാർ ഗോഡിൻ്റെ മോഹൻലാൽ മഞ്ജു വാര്യർ പിന്നെ കത്രീന കൈഫ് കരീന കപൂറ് അങ്ങനെ അങ്ങനെയുള്ളോരൊക്കെയാണ് അങ്ങനെയുള്ള മോ അങ്ങനെയുള്ളവരാണ് പരസ്യത്തിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചേരുക കാരണം എല്ലാവരും ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ പരസ്യത്തിലൂടെ വരുമ്പം അവർ അത് നല്ല പ്രോഡക്റ്റാന്ന് പറയുമ്പോഴാണ് ഒന്നും എത്ര ഇതുള്ള പ്രൊ പ്രൊഡക്റ്റാണെങ്കിലും അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതിന് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോൾ ഓൺലൈനായിട്ടിപ്പം യൂട്യൂബ് യുട്യൂബിൽ പരസ്യം എല്ലാത്തിൻ്റെ കൂടെ ഇടക്ക് കയറി വരുന്നുണ്ട് എഫ്ബില് വരുന്നുണ്ട് ഇപ്പോൾ എന്തൊരു ഇതെടുത്തിട്ടുണ്ടെങ്കിലും ടി വിൽ വരുന്ന പോലെ തന്നെ മറ്റ് ഇതിലും കൂടെയും പരസ്യം വരുന്നുണ്ട് അപ്പം എല്ലാരിലേക്കും എല്ലാം എത്തിക്കാൻ പറ്റുന്നുണ്ട്